എല്ലാ സംസ്കാരങ്ങളിലും അവരുടെതായ രീതിയിലുള്ള നൃത്തരൂപങ്ങളുണ്ട് അതെ നമുക്കുമുണ്ട് നമ്മുടെ പാരമ്പര്യമായി കൈമാറി വന്ന വളരെ ശ്രേഷ്ഠമായ ഒരുപാട് നൃത്തരൂപങ്ങൾ അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നതും തിരുവാതിരയെക്കുറിച്ചാണ് പത്താൾക്കാർ സെറ്റ് സാരിയെല്ലാമുടുത്ത് വളരെ തനതായ രീതിയിൽ പാട്ടിനനുസരിച്ച് കൈകൊട്ടി ആടുന്നതാണ് തിരുവാതിരയെന്ന് പറയുന്നത് പക്ഷേ പല നാടുകളിൽ നിന്നും പല രീതിയിലുള്ള നൃത്തങ്ങൾ ഇപ്പോൾ ഒരുമിച്ചുകൂട്ടി അത് പുതിയൊരു നൃത്തത്തിൻ്റെ രൂപമാക്കി മാറ്റുന്ന ഈയൊരു സമയത്ത് തീർച്ചയായിട്ടും അത് തിരുവാതിരയെയും ബാധിച്ചിട്ടുണ്ട് തിരുവാതിരയുടെ പുതിയ പല രീതിയിലുള്ള തിരുവാതിരയും ഞാനിപ്പോള് കാണാറുണ്ട് അതായത് അത് വളരെ മോഡേണായിട്ട് ഇപ്പോള് തിരുവാതിരയെ മാറ്റി ആ തിരുവാതിരയാണെന്നുപോലും തോന്നാത്ത രീതിയിലതിനെ മാറ്റുന്നതും ഞാന് കണ്ടിട്ടുണ്ട് ചിലതൊക്കെ വളരെ നല്ലതാണ് എപ്പോഴും മുന്നേറ്റങ്ങള് നല്ലതാണ് അത് കലാരൂപങ്ങളിലും മുന്നേറ്റങ്ങള് വളരെയധികം നല്ലതാണെങ്കിൽ കൂടി തിരുവാതിരയെന്ന് പറയുന്ന ആ ഒരു നൃത്തത്തിന് അതിനെ അതിൻ്റെ തനതായ രീതിയില് അംഗീകരിച്ച് അത് അതിൻ്റെ ആ ഒരു ഭയഭക്തിയോടെ കളിക്കുമ്പോഴാണ് അതിനെന്നും ഭംഗി കൂടുന്നതെന്നെനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പാരമ്പര്യനൃത്തത്തിനെ ഇപ്പോഴത്തെ പുതിയ പല രീതിയിലുള്ള ഇതര സംസ്കാരങ്ങളിൽ നിന്നുമുള്ള നൃത്തരൂപങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് അത് അതിനെയൊരു പരിധിവരെ മാറ്റിയിട്ടുണ്ടെങ്കിലും എന്നും തനതായ രീതി തന്നെയാണ് ഏറ്റവും മികച്ചത്